ഹലോ ചേട്ടാ ഞാൻ നുമുമ്പേ ക്യാബ് ബുക്ക് ചെയ്ത ആളായിരുന്നേ ഞാൻ കുറേ നേരമായിട്ടിവിടെ വെയ്റ്റ് ചെയ്യുന്നു എനിക്കിവിടെ ക്യാബ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ നിങ്ങൾ അയക്കാൻ നിങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ലെയ്റ്റാകുന്നതെന്ന് നിങ്ങൾക്കെത്ര സമയത്തിനുള്ളിൽ വരാൻ സാധിക്കും അതോ ഇത്ര സമയം കഴിഞ്ഞില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് വേറെ വണ്ടി വിടുകയാണോ അതോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യു നിങ്ങൾ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ റീഫണ്ട് ചെയ്ത് എനിക്ക് തന്നാൽ മതി ഒത്തിരി നേരമായിട്ട് ഞാൻ ഇവിടെ വെയ്റ്റാണ് ഏകദേശം ഒരൊന്നര മണിക്കൂറായിട്ട് ഞാനിവിടെ വെയ്റ്റ് ചെയ്യുകയാണ് എന്നിട്ടും നിങ്ങൾ ക്യാബ് അയയ്ക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാറിവിടെ എത്തുന്നില്ല എനിക്കറിയില്ല ഞാനൊരു ഒന്നര മണിക്കൂർ മുന്നേ വെയ്റ്റ് ചെയ്യുകയാണ് ആയിട്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഒരൊന്നര മണിക്കൂറായി അന്നേരം നിങ്ങളിവിടെ എത്തുന്നില്ല എന്താ എന്താണ് ഞാൻ ചെയ്യേണ്ടത് താങ്കൾ ഞങ്ങളുടെ എൻ്റെ പൈസ റീഫണ്ട് ചെയ്തു തരുന്നുണ്ടോ അതോ പെട്ടന്ന് തന്നെ ഏതെങ്കിലും കാർ അയക്കുന്നുണ്ടോ ഞാനിവിടെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഇനി ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കൂടെ വെയ്റ്റ് ചെയ്യുകയുള്ളു എന്താണെങ്കിലും പെട്ടന്ന് ചേട്ടനെന്നോട് പറയണം കാരണം ഒന്നുകിൽ എനിക്കടുത്ത ക്യാബ് ബുക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എനിക്ക് റീഫണ്ട് തന്നെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചേട്ടൻ വരുന്നില്ലങ്കിൽ വരുന്നില്ലയെന്ന് പറ എനിക്കടുത്ത ക്യാബ് ബുക്ക് ചെയ്യാനാണ് പക്ഷേ പൈസ എപ്പോഴാണെങ്കിലും റീഫണ്ട് ചെയ്യണം ഞാനൊരു അരമണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ് ഇനി എനിക്ക് വെയ്റ്റ് ചെയ്യാൻ സമയമില്ല ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ചേട്ടനിവിടെ എത്തിച്ചുതരണം എത്തിച്ച് തരണം എന്തെങ്കിലും കാരണം ഉണ്ടോ ചേട്ടന് പറയാൻ കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞോളു എന്താണെങ്കിലും ഞാനൊരു കാരണം ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുള്ളു ഇരുപത് മിനിറ്റിനുള്ളിൽ ചേട്ടനെത്തുകയാണെങ്കിൽ എത്തണം ഇല്ലെങ്കിൽ എനിക്ക് പൈസ റീഫണ്ട് ചെയ്തു തരണം ഞാനൊരു വേറെ ചേട്ടന് വേറെ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എനിക്കെന്തായാലും ഇനി ഞാൻ ഇരുപത് മിനിറ്റ് കൂടയേ വെയ്റ്റ് ചെയ്യുകയുള്ളു